ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മള് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പുകള് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും അതായത് ഗെയിമിങ്ങ് ആപ്പുകളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെത്തന്നെ നമുക്ക് സ്മാർട്ട് അതായത് സ്മാർട്ട് ഫോണുകളിൽ ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് അതായത് ബോയ്സ് ഒക്കെ ആണെങ്കിൽ കൂടുതലും ഗുണമില്ലാത്ത വീഡിയോസ് കാര്യങ്ങൾ ഒക്കെ കാണുക പിന്നെ അതായത് അതൊക്കെ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികള് വരെ ഇപ്പോൾ ചെറിയ കുട്ടികളുടെ അടുത്തുവരെ ഫോണാണ് അപ്പോൾ പണ്ടത്തെ കാലത്തൊന്നും അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല ഇപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടത്തെ കുടികളൊക്കെ നല്ല നല്ല കുട്ടികളും കാര്യങ്ങളൊക്കെ ആണ് പക്ഷേ ഇന്നത്തെ കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പല പല വൃത്തികെട്ട വീഡിയോകളും കാര്യങ്ങളൊക്കെ കാണുക അതായത് ഫോണിൽ കളിയൊക്കെ അതായത് ദുരുപയോഗം ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഉണ്ടാവുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇപ്പോൾ അതുകൊണ്ടുതന്നെ കൂടുതൽ പീഡനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനത്തെ പല കാര്യങ്ങൾ ഉണ്ട് പിന്നെ ഗെയിമ് കാര്യങ്ങൾ ഒക്കെ കാണുമ്പോൾ കണ്ട് അതായത് കളിച്ച് കളിച്ച് അതായത് അതിൽ അഡിക്റ്റാവുക അങ്ങനത്തെ പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അവരൊക്കെ അഡിക്റ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് ഫുൾ ടൈം അഡിക്റ്റായി പഠനം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാണ്ടാവുക അങ്ങനത്തെ പല അവസ്ഥകളും ഈ സ്മാർട്ട് ഫോണുകൾ വഴി നമുക്ക് ഉണ്ടാവും